നമ്മുടെ സംസ്ഥാനത്ത് കൂടുതലായിട്ടും ആഘോഷിക്കുന്നത് ക്രിസ്മസ് ദീപാവലി ഈദ് ഇതൊക്കെ തന്നെ ആഘോഷിക്കാറുണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസും ഈസ്റ്ററും ആണ് അവരുടെ ഏറ്റവും മതപരമായ ആഘോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇശോയുടെ ജനന തിരുനാളായ ക്രിസ്മസ് ഇരുപത്തഞ്ച് നൊയമ്പ് നോക്കിയിട്ട് ആണ് അവർ ആഘോഷിക്കുന്നത് അതുപോലെ തന്നെ അത് ഡിസംബർ ഇരുപത്തഞ്ചാം തീയ്യതി ആണ് അതുപോലെ തന്നെ ഈസ്റ്ററ് അമ്പതു ദിവസത്തെ നൊയമ്പ് നോക്കിയതിന് ശേഷം അതുപോലെ വളരെ പുണ്യമായി കണ്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ് ഇശോയുടെ മരണവുമായി ബന്ധപ്പെട്ട ആണ് ഈസ്റ്ററ് ആ ഇശോയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഈസ്റ്ററായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അത് സാധാരണ ഏപ്രിൽ മാർച്ച് അവസാനത്തോടെ അല്ലെങ്കിൽ ഏപ്രിൽ ആദ്യത്തെ ആഴ്ച്ചയൊക്കെയായിട്ടാണ് ഈസ്റ്ററ് അത് ഡേയ്റ്റ് പ്രതേകിച്ച് ഡേയ്റ്റ് അല്ല അത് ആ കലണ്ടറിൽ വരുന്ന ആ ഒരു ഇത് അനുസരിച്ചാണ് അപ്പം അത് രണ്ടുമാണ് ക്രിസ്ത്യാനികളുടെ മെനായിട്ടുള്ള മതപരമായ ചടങ്ങെന്ന് പറയുന്നത് പിന്നീട് ദീപാവലി നമ്മുടെ കേരളത്തിൽ ആദ്യ കാലങ്ങളിൽ ഒന്നും വലിയ ആഘോഷം ഒന്നും ഇല്ലെങ്കിൽപ്പോലും ഇപ്പോൾ എല്ലാവരും ആ ചടങ്ങ് നടത്തുന്നുണ്ട് ദീപാവലി അതുപോലെ തന്നെ ഹോളി നടത്താറുണ്ട് ഹോളി നമ്മുടെ നോർത്തിലാണ് കൂടുതലും വരുന്നത് കേരളത്തിൽ എന്നാലും ഇപ്പം കുറെ ഒക്കെ മാറ്റങ്ങൾ വന്നു ഇപ്പോൾ ഹോളിയൊക്കെ ആഘോഷിക്കുന്നുണ്ട് പിന്നെ മുസ്ലിംസിൻ്റെ പ്രധാനപ്പെട്ട തിരുനാളായിട്ട് അവർ ആഘോഷിക്കുന്നത് ഈദും റംസാൻ അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെയാണ് അതും അവർ നൊയിമ്പൊക്കെ നോക്കി രാവിലെ മുതൽ വൈകിട്ട് വരെ ഒന്നും കഴിക്കാതെ നൊയിമ്പ് ഒക്കെ നോക്കി അവരെടുക്കുന്ന ചടങ്ങാണ് ഈദ് എന്നൊക്കെ പറയുന്നത് അങ്ങനത്തെ ഈദ് ക്രിസ്മസ് പിന്നെയെന്താ ഈസ്റ്റർ ഹോളി ദീപാവലി ഇങ്ങനത്തെയൊക്കെ ചടങ്ങുകൾ മതപരമായ ചടങ്ങുകളൊക്കെയാണ് നമ്മുടെ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലായിട്ട് ആഘോഷിക്കുന്നത് പിന്നെ അത് കൂടാതെ ഓണം ഓണം എന്നു പറയുമ്പം നമ്മൾ ഒരു വിഭാഗക്കാര് മാത്രമല്ല കേരളത്തിൽ മുഴുവൻ മുഴുവൻ ആൾക്കാരും കൂടി ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു ആഘോഷമാണ് ഓണം എന്നു പറയുന്നത് നമ്മൾ ഒരു പത്ത് ദിവസമായിട്ട് അതിൽ നിന്ന് തുടങ്ങും അത്തം മുതൽ തുടങ്ങുകയാണ് അങ്ങനെ പത്ത് ദിവസമായിട്ട് തിരുവോണം വരെ അപ്പം കുട്ടികളുടെ പരിപാടിയും നമ്മുടെ അത്തപ്പൂ മത്സരം നടത്തുന്നു പിന്നേ ഊഞ്ഞാലാട്ടം അത് സ്കൂളുകളിലാണെങ്കിലും അതിൻ്റെ മത്സരങ്ങൾ ഒക്കെ നടത്തുകയും പിന്നേ എല്ലാവരും ഒന്നിച്ച് ആഘോഷിക്കുന്ന ഒരു ചടങ്ങെന്ന് വേണമെങ്കിൽ പറയാം ഓണമെന്ന് പറയുന്നത് അതിന് ജാതിമത ഭേദമന്യേ എല്ലാവരും അത് ആഘോഷിക്കാറുണ്ട് അത് നമ്മൾക്ക് ഓഗസ്റ്റ് സെപ്റ്റംബറിലായിട്ടാണ് വരുന്നത് എപ്പോഴും പത്ത് ദിവസങ്ങളിലും പൂക്കളമൊക്കെ ഇട്ട് വീടുകളിലും സ്ഥാപനങ്ങളിലൊക്കെ എല്ലാവരും പൂക്കളം ഒക്കെ ഇട്ട് ആഘോഷിക്കാറുണ്ട് അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റായിട്ടുള്ളൊരു ചടങ്ങ് തന്നെയാണ് അപ്പം ഓണവും ക്രിസ്മസും ഈസ്റ്ററും പിന്നെ ദീപാവലിയും ഈദ് ഉൽ ഫിദറും എല്ലാം കൂടി കൂടിയാണ് നമ്മുടെ സംസ്ഥാനത്തെ ആഘോഷങ്ങൾ നടക്കുന്നത്